ഹലോ ഇത് പരിവാഹനല്ലേ ഞാൻ വാഴവറ്റിയിൽനിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഡ്രൈവിംങ് ലൈസൻസിന് അടിയന്തരമായിട്ട് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അതായത് ഡ്രൈവിംങ് ലൈസൻസിന് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടത് ഒന്ന് പറഞ്ഞുതരുമോ ആ ആ ഓക്കെ ആ അതായത് നമ്മൾ ലേണിങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കഴിഞ് എത്ര ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ലൈസൻസ് കിട്ടുക ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് സൈക്കിൾ ബാലൻസ് മാത്രമേ ഉള്ളൂ ഇതുവരെ ടു വീലറ് ഒന്നും ഓടിച്ചിട്ടില്ല അതുപോലെത്തന്നെ ഫോർ വീലറും അപ്പം രണ്ടും കൂടെ ഒന്നിച്ച് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത് ആ ഓക്കേ

ഇത് എത്ര മാസം കൊണ്ടാണ് പഠിച്ചു കഴിയുക നമുക്ക് എപ്പോഴാണ് ലൈസൻസ് കിട്ടുക ഒന്ന് പറഞ്ഞുതരുമോ ഓക്കെ ആ രണ്ട് ഫോട്ടോയും ആധാർ കാർഡും പിന്നെ എന്തൊക്കെയാണ് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാ വേണ്ടത് എന്ന് ഒന്നുംകൂടെ പറയണം കേട്ടോ അതുപോലെത്തന്നെ നമുക്ക് വണ്ടി ഓടിക്കുക ഇതിന് മുന്നേ ഓടിച്ച് പരിചയമൊന്നും ഇല്ല ഫസ്റ്റ് ടൈം ആയത് കൊണ്ട് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് രാവിലെ ടൈമും കാര്യങ്ങളൊക്കെ എന്ന് പറയണം നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്